ഹലൊ ഇത് ഹോട്ടൽ ബ്ലൂ ബെറിയല്ലെ ആ നമുക്ക് ഏപ്രിൽ അഞ്ചാന്തീക്ക് എനിക്കൊരു റൂം വേണം അപ്പോൾ ഇപ്പമത് ബുക്ക് ചെയ്യണെങ്കിൽ നമുക്കെങ്ങനെ പ്രൊസീജ്യറൊക്കെ എങ്ങനെയൊക്കെയാതിൻ്റെ റൂം ബുക്ക് ചെയ്യണതൊക്കെ ഏപ്രിൽ അഞ്ചാന്തി ഇപ്പം നമ്മൾ ഇവിടെ ചെക്കൊ ഞങ്ങൾ വരുന്നതൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഉച്ച ഒരുഏകദേശമൊരു പന്ത്രണ്ട് മണിയോട് കൂടി അവിടെയെത്തും ആ അപ്പമത് ആയെല്ല ഇപ്പം ദിവസം നമ്മളിപ്പം അവിടെ ചൊന്നട്ടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളു കാരണം നമ്മള്ളൊരു കോൺഫ്രൻസിന് വേണ്ടി വരണതാണ് അപ്പം അതിന് മുമ്പ് ഇതെങ്ങനെയാണ് ബുക്കിങ്ങിൻ്റെ പ്രൊസീജ്യറൊക്കെ എങ്ങനെയാണെന്നറിയാൻ വേണ്ടീട്ടാണ് നിങ്ങളെന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഡിമാ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ആധാർ കാഡ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയ്ൽസ്സ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ അ ആധാർ കാഡാണ് ആ അ ഡീറ്റേയ്ൽസ്സും വേണമല്ലെ ആ അപ്പം നമ്മുടെ ഈ വേറെന്തെങ്കിലും വേണോ വേറെ അഡ്വാൻസ്സ് കൊടുക്കാൻ പേമെൻട് മുൻകൂട്ടി ബുക്ക് ചെയ്യണന്നക്കെ ആ ആപ്പയീ അഡ്വാൻസ് ബുക്ക് ചെയുമ്പത്തന്നെ ഈ പ്രൂഫും അഡ്വാൻസ്സും എല്ലാ ഒരുമിച്ചന്നെ തരണം

ആ ഞാനൊരാളെ ഉള്ളു അ ആ മതി സിങ്കിൾ റൂം മതി ആ ഏ സിയ ഏ സി വേണം

ബുക്ക് ചെയ്തിടാപ്പോൾ അപ്പയി ഈ പ്രൂഫ് നമുക്കിങ്ങനെ മിസ്യൂസ്സ് ചെയ്യപ്പെടുവൊന്നുവില്ലല്ലോ നമ്മളിപ്പത് തന്നാൽ നമുക്കത് സേഫ്റ്റി ആണല്ലെ നമ്മുടെ സെക്ക്യൂരിറ്റി ഉറപ്പാണല്ലോ അല്ലെ നമ്മളിപ്പയിത് തന്നിട്ട് കഴിഞ്ഞാൽ

പറ്റില്ലാല്ലെ ഓക്കെ ഓക്കെ അപ്പം ആ അപ്പം ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ട് ഞാൻ വരു നേരിൽ വരുമ്പോൾ പ്രൂഫന്നാൽ മതി ഡയറക്റ്റ് നേരിൽ കാണുമ്പം ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പം ഞാനെന്നാൽ എല്ലാം ഇമെയില് ചെയ്തേക്കാം ഡീറ്റേയിലായിട്ട് എങ്ങനാന്നുള്ളത് ഓക്കെ താങ്ക് യൂ